ഞാനൊരു ഗ്രാമപ്രദേശത്താണ് താമസിക്കുന്നത് എങ്കിൽ കൂടി എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഇടതു മാറിയിട്ട് രണ്ട് കിലോ മീറ്റർ ദൂരെ ആയിട്ട് ഒരു ചെറിയ ടൗണുണ്ട് പിന്നെ വലതു ഭാഗത്ത് പോയാൽ ഒരു മൂന്ന് കിലോ മീറ്റർ കഴിഞ്ഞാൽ വേറൊരു ടൗൺ ആണുള്ളത് അപ്പോൾ ആ രണ്ടു സ്ഥലങ്ങളിലും എ ടി എം മെഷീനുകളുണ്ട് പൈസേൻ്റെ ബുദ്ധിമുട്ടൊന്നും ഇപ്പോൾ പെട്ടെന്നങ്ങനെ വരാറില്ല പണ്ടൊക്കെ ആണെങ്കിൽ ബാങ്കിൽ പോയി ക്യു നിന്ന് കുറേ കഷ്ടപ്പെട്ടിട്ടൊക്കെയല്ലേ പൈസ കിട്ടുന്നത് രാവിലെ പോയി നല്ല തിരക്കായിരിക്കും ഇപ്പം എല്ലാവർക്കും സൗകര്യങ്ങൾ ഒരുപാടുണ്ടല്ലോ അതായത് ഗൂഗിൾ പേ ചെയ്യാൻ പറ്റുന്നുണ്ട് ഫോൺ പേ ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ എ ടി എം കാർഡ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ സ്വയ്പ് ചെയ്യുന്ന മെഷീന് പല സ്ഥലങ്ങളിലും ഉണ്ട് ഇപ്പോൾ പെട്ടെന്ന് പൈസ എടുത്തില്ലെങ്കിൽ പോലും നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും കടകളൊക്കെ സാധനം വാങ്ങിച്ചാൽ സ്വൈപ്പിങ് മെഷീൻ ഉള്ളത് കൊണ്ട് അതും ഒരുപാട് ഉപകാരപ്രദമാണ് പിന്നെ ഗൂഗിൾ പേയും ചെയ്തു കൊടുക്കാം ഈ എ ടി എമ്മിൽ ഇതുവരെ അങ്ങനെ പൈസ എടുക്കാൻ പോയിട്ട് ഇല്ലാത്ത അവസ്ഥയൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല ഈ വലത് ഭാഗത്ത് മൂന്ന് കിലോ മീറ്റർ ചുറ്റളവിൽ രണ്ടു മൂന്ന് എ ടി എം മെഷീൻ ഉണ്ട് ആ ടൗണിൽ ഇപ്പോഴാണെങ്കിൽ ആ ഏത് കാർഡും ഏത് എ ടി എം മെഷീനിലും യൂസ് ചെയ്യാമെന്നുള്ള ഇതും ഉള്ളതുകൊണ്ട് അതും കുഴപ്പമില്ല പണ്ടൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു ഗ്രാമീൺ ബാങ്കിൻ്റെ ആണേ എ ടി എം ആണെങ്കിൽ ഗ്രാമീൺ ബാങ്ക് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ ഇപ്പം എല്ലാ ബാങ്കിൻ്റെ എ ടി എം മെഷീനിൽ വെച്ചിട്ടും നമ്മൾ ഏത് ബാങ്കിൻ്റെയും എടുക്കാം പറ്റുന്നതുകൊണ്ട് ആ ബുദ്ധിമുട്ടും ഇല്ല പെട്ടെന്ന് പൈസയൊന്നും ഇല്ലെങ്കിൽ ഓടിപ്പോയിട്ടോ അല്ലെങ്കിൽ നടന്നു പോയാലും എത്താവുന്ന ദൂരത്തിൽ ഉള്ളതുകൊണ്ട് ഓടിപ്പോയി ആ എ ടി എം മെഷീനിൽ നിന്ന് പൈസ എടുത്തിട്ട് നമുക്ക് വലിയ ഉപകാരമാണ് ഇപ്പോൾ മുക്കിന് മുക്കിന് എ ടി എം മെഷീനുകൾ ഉണ്ട് ആ പണ്ടത്തെ പോലെയല്ല ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് ബാങ്കിങ്ങും ഒരുപാട് വളർന്നിട്ടുണ്ട് ബാങ്കിൻ്റെ സർവീസ് ആയാലും നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ബാങ്കിൻ്റെ കസ്റ്റമർ കെയറിൽ വിളിച്ചാലും അവർ പറഞ്ഞു തരും കൃത്യമായ നല്ല മറുപടിയാണ് തരുന്നത് അപ്പോൾ നല്ല സേവനങ്ങളാണ് ഇപ്പം ബാങ്കിങ്ങിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്